കഥകളിലെ വേഷങ്ങളെ വേഷങ്ങളെ മനോഹരമാക്കുന്നത് ചുട്ടി കുത്തുന്നത് പ്രധാന പങ്കാണ് പങ്കാണുള്ളത് പച്ച പച്ചരി നന്നായി കുതിർത്ത് അരിച്ചെടുത്ത് അത് മൂന്നേ പോയിൻ്റ ഒന്ന് അനുപാതത്തിൽ ചുണ്ണാമ്പു ചേർത്തെടുത്താണ് ചുട്ടി തയ്യാറാക്കുന്നത് കടലാസ് മുഖത്തിൻ്റെ അളവനുസരിച്ച് വെട്ടിയെടുത്ത് വെച്ച് പിടിപ്പിക്കുന്ന വടക്കൻ കുട്ടികൾക്ക് നല്ല വ്യത്യാസമുണ്ട് കഥകളി മുഖത്ത് ചായമെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ കഥകളി കാണാൻ നല്ല ഭംഗിയാണ്